ഹലോ ഇത് ഹിഷാം ബിരിയാണി ഹൗസല്ലേ നിങ്ങളുടെ കടയില് ചിക്കൻ ബിരിയാണി ഉണ്ടോ ചിക്കൻ ബിരിയാണിക്ക് ഓഫറുണ്ടോ ഒരൂ അഞ്ച് ഫുള്ള് പാർസല് അയക്കണേ പെട്ടന്ന് തന്നെ അയക്കണേ ഇവിടെ തിരക്കാണ് പിന്നെ ഒരു ബോട്ടിൽ സെവൻ അപ്പ് സെവൻ അപ്പ് ഒരു ഫുൾ ബോട്ടിൽ സെവൻ അപ്പ് എടുത്തോളീ പരമാവധി പരമാവധി വേഗത്തില് കൊണ്ടുവരണേ ബീഫ് ഫ്രൈയൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതും കൊടുത്തയക്കണേ